ഹലോ വീസ്മയ ഹോട്ടലല്ലേ സാര് എനിക്ക് അവിടുന്ന് ഒരോഡറിനായിരുന്നു സാര് പാഴ്സല് സര്വീസിന് സാര് എനിക്ക് മൂന്ന് പൊറോട്ട ഒര് എഗ് ബിരിയാണി ഒരു ചിക്കന് ഫ്രൈ ഒരു തന്തൂരി ചിക്കന് എന്നിവ ഓഡര് ചെയ്യണം സാര് എന്റെ അഡ്രസ്സ് ഷൈജു മണി ആലിലക്കുഴി ഹൗസ് അമ്പൂരി പി ഒ ഫോണ് നമ്പര് സെവെന് ത്രീ ഫൈവ് സിക്സ്സ് ഡബിള് ഫൈവ് നയന് ഫൈവ് നയന് ഫോര് സാര് പേമെന്റ് ആയിരത്തി അഞ്ഞൂറ് ഗൂഗിള് പേ ചെയ്യാം സാര്